ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ ട്വിറ്ററോ ലൂടെയും വാർത്തകൾ നമുക്ക് ലഭ്യമാണ് ഇത് മൂന്നും ഒരു മാധ്യമമെന്ന നിലയിൽ തന്നെ പല ആളുകളും യൂസ് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ടും ഫേസ്ബുക്കും ട്വിറ്ററും ആണ് കൂടുതലായിട്ടും ഇത്തരത്തിൽ വാർത്തകളായിട്ടും ലഭിക്കുന്നത് എന്നാൽ മറ്റ് ടീ വികളിലൂടെയും റേഡിയോകളിലൂടെയും ന്യൂസ്പേപ്പറുകളിലൂടെയും ലഭിക്കുന്ന വാർത്തകളുടത്രയും ക്ലാരിറ്റി ഒന്നും തന്നെ ഫേസ്ബുക്കുകളിലൂടെയും മറ്റും ലഭിക്കുന്ന വർത്തകൾക്കുണ്ടാകുന്നില്ല അത് നമുക്ക് കൂടുതലായിട്ടും വിശ്വസിക്കാനാകുന്നതാണോ എന്നുള്ള ചോദ്യത്തിന് അതത്രയും വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല കാരണം അത് ഓരോരുത്തർ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഓരോ വാർത്തേനെ അവരുടേതായ ഭാഷകളിലേക്ക് അവർ രസിക്കുന്നതു കൊണ്ടു തന്നെ അത് നമുക്ക് അത്ര വിശ്വസിക്കാനായിട്ട് കഴിയത്തില്ല അതുപോലെ തന്നെ ഇത് ഫേസ്ബുക്കെന്നു പറയുന്നത് കൂടുതലായിട്ടും ഒരു എന്താണ് ചാറ്റിങ്ങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണീ ഒരാപ്പാണ് അതു പോലെ തന്നെ അത് അത്ര ഒരു മാധ്യമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതായി തോന്നുന്നില്ല പിന്നെ ഇത് ട്വിറ്റർ ഉപയോഗിക്കുന്ന അവയുടെ വിശ്വസനീയതയെന്നു പറയുമ്പോഴത്തേക്കും വളരെയധികം കുറവാണ് മറ്റ് മാധ്യമങ്ങളെ വെച്ചു നോക്കുമ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ട്വിറ്ററൊക്കെ തന്നെ അത്രയും ഒരു എന്താണ് ക്ലാരിറ്റി ആയിട്ടുള്ള ഇൻഫർമേഷൻസൊന്നും നമുക്ക് നൽകുന്നില്ല അതുകൊണ്ടു തന്നെ അത് കൂടുതലായിട്ടും നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കത്തില്ല എന്നാൽ ഈ ഫേസ്ബുക്കെന്ന് പറയുന്നത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പ്രായമായിരുന്നവരാണ് അതുകൊണ്ടു തന്നെ അത് അവർ അവർക്ക് ഈ കാലഘട്ടെ ഫോണെന്ന് പറയുന്നൊരു മാധ്യമം അത് ഈ ഒരു കുറച്ചായതല്ലേ ഉള്ളൂ അതിന് അതിനു മുമ്പ് ഇതുപയോഗിക്കാണ്ടിരുന്നവർ ഈ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അത്തരത്തിൽ കൂടുതലായിട്ട് ഫോണിനെ കുറിച്ച് വിവരങ്ങളൊന്നും അറിയില്ലാത്ത പ്രായമായിരിക്കുന്ന അമ്മയും അച്ഛനും അങ്ങനെയുള്ളവരൊക്കെ തന്നെ ഫേസ്ബുക്കിലൂടെയൊക്കെ വരുന്ന വർത്തകളൊക്കെ തന്നെ അന്ധമായി തന്നെ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അതും എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഫ്യൂച്ചർ ജനറേഷനിൽ അതിനെക്കുറിച്ച് കുറച്ചൊക്കെ ചിന്തിക്കുന്നതു കൊണ്ടു തന്നെ അവരിൽ പലരും ഇത് സത്യമാണോ അല്ലയോ എന്നുള്ള തിരിച്ചറിയാനുള്ളൊരു കഴിവുള്ളതു കൊണ്ടു തന്നെ അവരത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ പ്രായമായിരിക്കുന്നവരീ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ട്വിറ്ററിലൂടെയും ഒക്കെ ലഭിക്കുന്ന വാർത്തകളെന്നു പറയുന്നത് ശരിയാണെങ്കിലും ചില വർത്തകൾ ശരി അല്ലാത്ത രീതിയിലുള്ളവയുണ്ടായിരിക്കും അത്തരത്തിലുള്ള വാർത്തകളെ അവർ വിശ്വസിക്കുന്നു അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഫേസ്ബുക്കുകളും ഇൻസ്റ്റഗ്രാമും ട്വിറ്ററിലും ടെ ലഭിക്കുന്ന വാർത്തകളെന്ന് പറയ വാർത്തകളെന്നു പറയുന്നത്രയും വിശ്വസിക്കാനായിട്ട് സാധ്യമായവയല്ല എന്നിരുന്നാലും അത് ന്യൂസ് കാണാത്തൊരാളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഈ മാധ്യമങ്ങളിലൂടെയാണ് ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ട്വിറ്ററിലും മാത്രമായിട്ട് ദൈനംദിനം അതിൽ കയറിയിടപ്പെടുന്നവരാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂസ് കാണുന്നതിനു പകരം ആ ന്യൂസിനെ ഷോട്ടാക്കിയിട്ടൊരു ഇൻഫോർമേഷൻ ലഭിക്കുന്നത് ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും സഹായിക്കുന്നുണ്ട് അതുകൊണ്ടിത് ഒരു മാധ്യമമെന്ന നിലയിൽ ഇത് വളരെ അധികം ഈ ജനറേഷനെ ആയാലും സഹായിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇത് മറ്റ് നമ്മുടെ പത്രങ്ങളെ പോലെയും അതുപോലെ തന്നെ ടീ വികളിൽ ലഭിക്കുന്ന വാർത്തകളിലായാലും റേഡിയോസിലൂടെ ലഭിക്കുന്ന വാർത്തകളിലെ അത്രയും തന്നെ വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നതല്ല അതുപോലെ തന്നെ ഈ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലൂടെയൊക്കെ ലഭിക്കുന്ന വാർത്തകളെന്നു പറയുമ്പം അത് ജസ്റ്റ് നമുക്കതിൻ്റെ ഒരു പകുതി മാത്രം വാർത്തയേ നമുക്ക് ലഭികത്തുള്ളു അതിനെ കുറിച്ച് കൂടുതലായിട്ടുള്ളൊരു ഇൻഫർമേഷൻസൊന്നും നമുക്കിതിലൂടെ ലഭിക്കുന്നില്ല ഒരു പക്ഷേ ആ കിട്ടുന്ന വാർത്തയെന്നു പറയുന്നത് ചിലപ്പമെങ്കിൽ ആ സംഭവം

ഇൻസ്റ്റഗ്രാമിലൂടെയും ലഭിക്കുന്നത് ചില വാർത്തകൾക്ക് ചില വാർത്തകൾക്ക് വേണ്ടത്ര ക്ലാരിറ്റിയോ അല്ലെങ്കിൽ ഇൻഫൊർമേഷൻസും ഒന്നും തന്നെ ഉണ്ടായിരിക്കത്തില്ല എന്നിരുന്നാലും ഇത് നമ്മളറിയാത്ത വർത്തകളെക്കുറിച്ച് നമുക്ക് കുറച്ച് ഇൻഫൊർമേഷൻസൊക്കെ തരുന്നുണ്ട് പിന്നെ ഈ ഫേസ്ബുക്കുകളിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ തന്നെ വരുന്ന അതിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കമൻറ്റുകളൊക്കെ തന്നെ രേഖപ്പെടുത്താനായിട്ട് കഴിയുന്നുണ്ട് അതു കൊണ്ടു തന്നെ അത് കുറച്ച് ചർച്ച ചെയ്യാനായിട്ട് നമുക്ക് ഈ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ട്വിറ്ററൊക്കെ തന്നെ നമുക്ക് സഹായിക്കുന്നുണ്ട് മാത്രമല്ല ന്യൂസുകൾ കാണാത്ത പല കുട്ടികളും കാണുമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഫേസ്ബുക്കിലൊക്കെ തന്നെ കയറി നിരങ്ങുന്നവരായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകളെന്നു പറയുന്നത് അവർക്ക് വാർത്തകളറിയാനായിട്ടവർ സഹായിക്കുന്നുണ്ട് ഉണ്ട് പിന്നേ പക്ഷേ എന്നിരുന്നാലും ഇത് നമുക്ക് കൂടുതലായിട്ട് വിശ്വസിക്കാനായിട്ട് കഴിയത്തില്ല കാരണം ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കൊക്കെ ആയാലും അതത്ര സെയിഫായിട്ടുള്ളൊരു മാധ്യമം ആയിട്ട് തോന്നുന്നില്ല